സൈക്കിള് എപ്പളും പോകാൻ കഴിഞ്ഞൂട കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ബൈക്കിനെ അപേക്ഷിച്ച് മുൻപായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിച്ചത് സൈക്കളാണല്ലേ സൈക്കിൾന്ന് വച്ച് കഴിഞ്ഞാൽ ബൈക്കിനെ പോലെ അല്ല നമുക്കെപ്പോളും കാലിൻ്റെ ബലത്തിനും എപ്പോളും ഏറ്റവും ഗുഡ് സാധനം സൈക്കിളാ നമ്മളിപ്പം ജിമ്മി പോയിട്ട് പെഡലിങ്ങ് പോലെ തന്നെ കാലിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തിയാണ് സൈക്കിങ്ങ് ചെയ്യാന്ന് പറയുമ്പോൾ സൈക്കിളിങ്ങ് അതല്ലാണ്ട് പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് സൈക്ലിങ്ങ് ചെയ്യാൻ അപ്പം നമ്മൾഒരു പാട് യാത്രയൊക്കെ പോകുമ്പോൾ ജാഗ്രതേന്നൊക്കെ ചെയ്താലും നമ്മളിപ്ലും കോൺഷ്യസായിട്ടാണ് അപ്പം നിൽക്കുക അത് വണ്ടി വണ്ടി ഓടിക്കുമ്പം സിഗ്നൽ സിഗ്നല് വീഴുമ്പോൾ ബ്രേക്ക് പിടിക്കും അതെല്ലാം ചെയ്യും പിന്നെ അപ്പം റോള് എന്ത് ആണെന്ന് വച്ചാലും നമ്മളെ കൊണ്ട് പറ്റും അല്ലങ്കിലും ഇ ഇതെക്കെ ഇതൊക്കെ എനിക്ക് പറ്റുംന്നൊള്ള ആ ഒരു മൈൻഡിലാണ് ഞാൻ പോകുക അപ്പം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുല്ല ഇങ്ങനെത്തന്നെ പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാണ് വേറെ ഒന്നുമില്ല